ഞാൻ പി എസ് സി എക്സാമിനു വേണ്ടിയിട്ട് നമ്മുടെ ജില്ല വിട്ടിട്ട് കോഴിക്കോട് ജില്ലയിലാണ് പോയത് ഞാൻ ഈ വയനാട്ടിൽത്തന്നെ നിൽക്കണ ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചെടുത്തോളം എനിക്ക് അറിയില്ല അവിടത്തെ പോയിട്ട് അവിടത്തെ സ്ഥലങ്ങളോ എങ്ങനെ പോകണം എന്താ അറിയില്ല കാരണം അതൊരു സിറ്റി പോലെയാണ് നമ്മുടെ നാട്ടുംപ്രദേശം അല്ല നാട്ടുംപ്രദേശത്തുനിന്നുള്ള നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നല്ല നമ്മുടെ ഇവിടെത്തന്നെ നിന്നാൽത്തന്നെ നമുക്ക് അറിയില്ല പക്ഷേ അവിടെ ചെന്ന് ഒരു ഓട്ടോ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് പോകേണ്ടത് അപ്പോൾ ആ ചേട്ടൻ നമ്മളെ അവിടെ കൊണ്ടാക്കിത്തരുകയും പിന്നെ അതു കഴിഞ്ഞിട്ട് എവിടെ നിന്നാണ് വണ്ടി കയറേണ്ടതെന്നൊക്കെ പറഞ്ഞുതന്നു ആ ചേട്ടൻ്റെ നല്ല മനസ്സ് കാരണം അയാളെ എത്ര നമ്മൾ അഭിനന്ദിച്ചാലും ഇതാക്കില്ല കാരണം ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒന്നാമത് ഗേൾസ് പെണ്ണാണ് അപ്പം നമുക്ക് പേടിക്കാൻ ഉള്ള സ്ഥലത്തു നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമാണ് വളരേ നന്ദിയുണ്ട് ആൾ ആ അവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മളോട് ഇന്ന സ്ഥലത്താണ് അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ട വഴിയൊക്കെ അയാൾ തന്നെയാണ് പറഞ്ഞു തന്നത് എവിടെ നിന്നു വണ്ടി കിട്ടാം എന്നൊക്കെ പറഞ്ഞു തന്നു ഇപ്പം എന്താ പറയുക അയാളുടെ ആ മാന്യമായ പെരുമാറ്റത്തിന് അഭിനന്ദനം എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇതായിപ്പോവും മനസ്സ് അറിഞ്ഞു നന്ദി പറയുകയാണ് ഞാൻ സന്തോഷമുണ്ട്